ആ പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരുപിടി മുമ്പിൽ നിൽക്കുന്നത് പഴയ പാട്ടുകൾ തന്നെയാണ് കാരണം പഴയ പാട്ടുകൾക്ക് ഒരു വ്യക്തമായ താള ബോധവും ട്യൂണും ഒക്കെ ഉണ്ടായിരുന്നു അവയൊക്കെ കേൾക്കുന്നതു തന്നെ ഒരുവിധം ആനന്ദകരവും അതുപോലെ തന്നെ ഒരു മനസ്സിന് ഒരു പ്രത്യേക സുഖവും തോന്നാറുണ്ട്

പുതിയ ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നിലവാരം ഇല്ലായ്മ എപ്പോഴും അവയിൽ കാണാറുണ്ട് പുതിയ പാട്ടുകളുടെ വരികളും അതിൻറെ ഈണങ്ങളും ആം ഒക്കേ ഒരു ഒരു സുഖമില്ലാത്ത ഒരു രീതിയാണ് അതുപോലെ തന്നെ അവയുടെ കാസ് കാ ഓർക്കസ്ട്രാ സംവിധാനത്തിലുള്ള ഒരു പോരായ്മകൾ ഓർക്കസ്ട്രയുടെ ഒരതിപ്രസരം തന്നെയാണ് ഇ പുതിയ ഗാനങ്ങളിൽ പൊതുവെ കണ്ടു വരുന്നത് നേരെമറിച്ചു പഴയ ഗാനങ്ങളാണെങ്കിൽ അവയ്ക്ക് വളരെ നല്ല താളവും ആ വളരെ നല്ല വരികളും ഒക്കെയാണ് പഴയ പാട്ടുകളിൽ പൊതുവെ പ്രകടമാകുന്നത് പക്ഷെ പുതു തലമുറയ്ക്ക് പഴയ ഗാനങ്ങളോടു പൊതുവെ വലിയ താത്പര്യം ഉണ്ടാകണം എന്നില്ല പക്ഷെ ഒരു പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും പഴയ ഗാനങ്ങൾ തന്നെയായിരിക്കും മുന്നിട്ടു നിൽക്കുക എന്നു തന്നെയാണ് നമ്മൾ കരുതേണ്ടത് പുതിയ ഗാനങ്ങളിൽ ഉപയോഗിക്കുന്ന പദങ്ങളും വാക്കുകളും ഒന്നും

ആകില്ല എന്താ പറയുക ഒരു ഒരു ചിട്ടയില്ലായ്മ അവയിൽ പ്രകടമാണ് നേരെ മറിച്ച് പഴയ ഗാനങ്ങളാണെങ്കിൽ അവയിൽ നല്ല താളത്തോടും നല്ല ഈണത്തോടും കൂടിയ വരികളും അതിനാൽ അ അതിനു ചേർന്ന രീതിയിലുള്ള ഓർക്കസ്ട്രേഷനും ഓർക്കസ്ട്രയും ഒക്കെയാണ് പൊതുവെ പഴയ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് പഴയ വരികൾ എപ്പോഴും പുതിയ ആണെന്നുള്ള വരികളെ കഴിഞ്ഞും വളരെയേറെ മെച്ചവും എന്നാൽ കേൾക്കാൻ കാതിൽ ഇമ്പം നല്കുന്നവയും ആണ്